ഇപ്പോൾ വിവാഹങ്ങളില് വധുവിന് സമ്മാനങ്ങൾ കൂടുതലായിട്ടും കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കില് കൂടുതലായിട്ടും സാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ആണ് കൂടുതലായിട്ടും കൊടുക്കാറുള്ളത് അപ്പോൾ അല്ലാണ്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര് കൊടുക്കാറുള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാല് പണമായിട്ടാണ് കാരണം വധുവിനെ കെട്ടിച്ചു വിടണെങ്കില് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാശും കാര്യങ്ങളൊക്കെ വേണം അവർക്ക് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വേണം അപ്പം കൂടുതലായിട്ടും പ്രസേൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കാത്തതുകൊണ്ട് എല്ലാവരും പൈസയായിട്ടാണ് കൂടുതലും കൊടുക്കാറ് അപ്പം അവരുടെ വീട്ടുകാർക്കും ഒരു സഹായവും ആകും പിന്നെ അവരുടെ എല്ലാ കാര്യത്തിലും അത് ഉപകരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഇപ്പോൾ ഒരു പന്തൽ പണിയണമെങ്കില് ഇപ്പോൾ ഒരു കല്യാണം നടത്തണെങ്കില് നല്ല രീതിയിലുള്ള കാശും കാര്യങ്ങളൊക്കെ ആവശ്യായിട്ടുള്ളതാണ് അപ്പം അപ്പോൾ അതൊക്കെയാണ് നല്ല രീതിയിൽ നടത്തണെങ്കില് പൈസ എന്തായാലും ആവശ്യമുള്ളൊരു ഘടകമായിട്ടു മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ടും ആളുകള് കൂടുതലായിട്ടും ക്യാഷ് അങ്ങ് ക്യാഷ് ആണ് കൂടുതലായിട്ടും കൊടുക്കാറുള്ളതെന്നു വേണെങ്കിൽ പറയാം പിന്നെ സ്ത്രീധനം കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീധനം കൊടുക്കുന്നുണ്ട് കാരണമെന്തെച്ചെഞ്ഞാല് അവരുടെ ഒരു എന്താ പറയുക് വെറുതെയങ്ങു ഇറക്കി വിടാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂല്ലല്ലോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്